പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും തമ്മിൽ ധാരാളം വ്യത്യാസം ഉണ്ട് അതിൽ വരികളിലായിരുന്നാലും ഈണത്തിലായിരുന്നാലും അവയിലെ രചനയിലായിരുന്നാലും ഒക്കെ വളരെ അധികം വ്യത്യാസം രണ്ടിലും ഉണ്ട് അതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം നീലവാനിലലിയുന്നു ഗാഹ മേഘം നിൻ മിഴിയിലലിയുന്നെൻ ജീവ മേഘം ഇതൊരു പഴയ ഗാനമാണ് ഇനി പുതിയ ഗാനം തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ തേപ്പുപെട്ടി പോലെ വന്നിട്ടെന്നെ എന്ന് തുടങ്ങുന്ന ഒരു പുതിയ ഗാനവും ഞാനിവിടെ പാടി അപ്പം ഇത് കേൾക്കുന്ന ആർക്കായിരുന്നാലും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാവുന്ന കാര്യമാണ് പഴയ ഗാനങ്ങൾ ഒരിക്കലും നമ്മൾ കേട്ട് പഴകിയതായിരുന്നാലും പഴകാത്തതായിരുന്നാലും ശരി പഴയ ഗാനങ്ങളുടെ വരികൾ നമ്മൾ അതിൻ്റെ ഈണങ്ങളായിരുന്നാൽ തന്നെയും ഒരിക്കലും മറക്കില്ല എപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ മായാതെ കാണും പക്ഷേ പുതിയ ഗാനങ്ങളാണെങ്കിൽ അതിലെ വരികളൊക്കെ വളരെ ചില ചില ഗാനങ്ങൾ ഞാൻ ഇപ്പോൾ പാടിയ ഗാനം അല്ല വേറെ ചില പാട്ടുകളൊക്കെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ഒക്കെ ആണവർ രചനയെല്ലാം നിർവ്വഹിച്ചിരിക്കുന്നത് എനിക്ക് എപ്പോഴും പഴയ ഗാനങ്ങളോടാണ് ഇഷ്ടം